ഹലോ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ഐ ഫോൺ തേർട്ടീൻ ഞാൻ എടുത്തത് ഞാൻ ആമസോൺ വഴിയാണ് ഈ ഒരു ഐ ഫോൺ തേർട്ടീൻ ഓർഡർ ചെയ്തത് എൻ്റെ സുഹൃത്തും എൻ്റെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള സിനൻ എന്നോടു സംസാരിക്കുകയും ഇങ്ങനെ ഒരു ഓഫര് ഈ ഒരു ഐ ഫോണില് വന്നിട്ടുണ്ടെന്നു പറയുകയും അങ്ങനെയാണ് ഈ ഫോൺ എന്തായത് ഞാൻ വാങ്ങിയത് വളരെ നല്ല ഡിസൈനും അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഫോണാണ് ഈ ഐ ഫോൺ പതിമൂന്നെന്നുള്ളത് ഒരു വീഡിയോഗ്രാഫർ ആൻഡ് വീഡിയോ എഡിറ്ററെന്ന നിലയ്ക്ക് ഫോട്ടോഗ്രാഫറെന്ന നിലയ്ക്ക് എനിക്ക് ഒരു ഐ ഫോൺ നിർബന്ധമാവുകയും അങ്ങനെ ഞാന് വളരെ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും നല്ല പിക്സലുമുള്ള ഈ ഒരു ഫോണെടുക്കുകയും അതെനിക്ക് എൻ്റെ കരിയറിനെത്തന്നെ മാറ്റി മറിക്കാനെന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാന് ഐ ഫോൺ പതിമൂന്നിന്റെ പല വിശേഷങ്ങളും എനിക്ക് അതിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ് അതിന് ഞാൻ ഒരുപാട് അതിൻ്റെ വിശേഷങ്ങളതിൻ്റെ ഫീച്ചേഴ്സ് എന്തായിട്ടുണ്ട് എനിക്കു വളരെ നല്ല ആകർഷകമായി തോന്നുകയും അതും മുഖേന ഞാനൊരു ഫോൺ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേയും അതിന്റെ പെർഫോമൻസും അതിൻ്റെ സ്റ്റോറേജും അത് നമുക്ക് എളുപ്പത്തില് കൈവശം എടുക്കാൻ കഴിയുന്നൊരു സൂക്ഷ്മമായ രൂപത്തിലാണ് അതിൻ്റെ രൂപമുള്ളത് അതുപോലെ വളരെ പ്രീമിയം ഫീലിയും സ്മൂത്ത് ഫിനിഷ് അതിൻ്റെ ഒരുപാട് കളർ ഓപ്ഷനുകൾ അതൊക്കെ വളരെ ആകർഷകമായ ഒന്നാണ് ഓക്കെ താങ്ക്യൂ